ആഹ് അതെ അതേ അതെ അതെ അതെ സ്നാക്സ്സക്കെയുണ്ട് എല്ലാമുണ്ട് ഉം സ്നാക്സെന്നാ ഒക്കെയാണു വേണ്ടത് ചായയൊക്കെ ഉണ്ടാക്കിത്തരാം സ്നാക്സെന്നാ ഒക്കെയാ വേണ്ടേ സ്നാക്സ്സ് പരിപ്പുവടയുണ്ട് പഴമ്പൊരിയുണ്ട് നിങ്ങള് എന്തു പറഞ്ഞാലും അതുണ്ടാക്കിത്തരാനായിട്ടു സാധിക്കും

വേറേന്നാ നെയ്യപ്പമുണ്ട് നെയ്യപ്പമുണ്ട് ഉണ്ട് ഉണ്ട് യെസ് അതുണ്ടാക്കാം അതു നല്ല വട്ടയപ്പം ഉണ്ടാക്കാം പിന്നേ പിന്നേ എന്നാ നല്ല നല്ല ബിസ്കറ്റുകളുണ്ട് നല്ല ഗ്രാന്റ് ബിസ്ക്കറ്റുകള് അത് കൊണ്ടുത്തരാം അതെത്രപേർക്കാണു വേണ്ടത് അമ്പത് പേർക്ക് ഓക്കെ ഓക്കെ ഓക്കെ റെഡി ഓ തീർച്ചയായിട്ടും തീർച്ഛയായിട്ടും കൊണ്ടുത്തരുന്നതായിരിക്കും ആഹ് ഓക്കെ ഓക്കെയാണ് പൈസയൊക്കെ കൃത്യമായിട്ട് തന്നേക്കണം കേട്ടോ ഓക്കെ ദെൻ ബൈ